ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നു പറയുന്നത് നദികളും കാടുകളും മലകളൊക്കെ ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പുഴകളിൽ നിന്നും മണൽ വാരുകയും വേസ്റ്റുകൾ കൊണ്ടിടുകയും ചെയ്യുന്നതിലൂടെ പ്രകൃതിക്ക് ഒരുപാട് ദോഷം ഉണ്ടാകുന്നു കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് മരങ്ങളൊക്കെ ഇല്ലാതാക്കുമ്പോൾ നല്ല വായു ഓക്സിജൻ കിട്ടാതാകുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാകുണു മലകളും കുന്നുകളും ഒക്കെ ഇടിച്ച് അവിടെ ബിൽഡിങ്ങുകളും പുതിയ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നതോടുകൂടി അതിന്റെ ആ ഒരു യഥാർത്ഥ ആ ഒരു പ്രകൃതിയുടെ രൂപം നഷ്ടമാവുകയാണ് നഷ്ടപ്പെടുന്നുണ്ട് കൃഷിയിടങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കൃഷിയിടങ്ങളിൽ ഒക്കെ ഇപ്പോൾ ഓരോ ബിൽഡിങ്ങുകളും ഒക്കെയാണ്